ആ കേൾക്കുന്നുണ്ട് പറയൂ ആരാണ് അതെയതെ ഓക്കെ പറയൂ ഒരാഴ്ചയോ ഒരാഴ്ചന്നൊക്കെ പറയുമ്പോൾ കുറച്ചു ബു ഇതായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം പ്ലസ് ടൂ അല്ലെ മൊത്തം പോർഷൻസ് തീർക്കേണ്ട ടൈമും റിവിഷനും എക്സാമൊക്കെ അടുക്കുക അടുത്തില്ലേ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവൾക്ക് പിന്നെ ക്യാച്ചപ്പ് ചെയ്തെടുക്കാനൊക്കെ അപ്പോൾ ഒരാഴ്ചന്നൊക്കെ ലീവെടുക്കുകന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ സംഭവം ശരിയാണ് ഒരാഴ്ച ലൈക് പ്രോഗ്രാമും സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ നോക്കി നോക്കൂ പ്ലസ് ടൂ ആണ് അത് നമ്മുടെ ഫ്യുച്ചറിനെ ഫ്യുച്ചറിന് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു ഇയറാണിത് എന്നുവെച്ചുകഴിഞ്ഞാൽ പ്ലസ് ടൂ നമ്മൾ എന്തുചെയ്യും എന്താവണം എന്തുചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന ഒരു വർഷമാണിത് അപ്പോൾ അതിൻ്റെടേൽ ഇങ്ങനെ അതും എക്സാമിൻ്റെ ടൈമിലിങ്ങനെ ഒരു ഫങ്ഷൻ അതും വൺ വീക്കൊക്കെന്നു പറയുമ്പോൾ അവൾക്കിപ്പോൾ ഫിസിക്സും മാത്സും ഒക്കെ കുറച്ച് മാർക്ക് കുറവാണ് ഒന്നുകൂടിയൊന്ന് ശരിയാവാനുണ്ട് അവൾക്ക് നമ്മളവനേയൊക്കെ ടോപ്പ് ടോപ്പിൽ പ്രതീക്ഷിക്കുന്നൊരു കുട്ടിയാണവളൊക്കെ അപ്പൊപ്പിന്നെ ആ ഈ ടൈമിലങ്ങനെ വന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവില്ലേ ലൈക് എക്ട്രാ ക്ലാസിനു വന്നില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നത് ക്യാച്ചപ്പ് ചെയ്യാൻ പിന്നെ അതുമാത്രമല്ല ആ എന്നുവെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ എനിക്ക് കുറച്ച്കൂടി പോർഷൻസ് കമ്പ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് കമ്പ്ലീറ്റ് ചെയ്ത് അതിൻറ്റൊപ്പം റിവിഷൻസും പിന്നെ എക്സാമുകളും നടത്താം എന്നാണ് ഞാൻ വിചാരിക്കണത് ഈയൊരു വീക്കിലെ അപ്പോൾ ഇതിങ്ങനെ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ വീക്ക് ലീവൊക്കെ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം വൺ വീക്കിനുപകരം നമുക്കൊരു മൂന്നുദിവസം ആക്കിയാലോ എന്നുവെച്ചു കഴിഞ്ഞാൽ മൂന്നുദിവസത്തിൽ മൂന്നുദിവസം അവൾക്ക് ലീവ് തരാം ഫുൾ ഡേ ബാക്കിയുള്ള ദിവസം നൈറ്റൊക്കെ ആരിക്കില്ലേ പ്രോഗാമുണ്ടാവുക ആ ദിവസം ക്ലാസ്സിലേക്ക് വരട്ടെ ആ മനസ്സിലായി മനസിലായി ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ മൂന്നുദിവസം ആ ബാക്കി ദിവസൊക്കെ നെറ്റാരിക്കില്ലേ പ്രോഗ്രാമുണ്ടാവുക അതവൾ ലൈക് രാവിലെ ക്ലാസ്സിന് വന്നിട്ട് അവൾ മറ്റേതിന് പൊക്കോട്ടെ മറ്റ് മൂന്നുദിവസം ഞാൻ ലീവ് ഓക്കെ ചെയ്യാം നമുക്ക് ഓക്കെ ആ ആ ഉണ്ടാവും ഉണ്ടാവും ഓക്കെ ഒരുകാര്യം ചെയ്യ് നാളെ ലെറ്ററെഴുതിക്കൊടുത്താൽ മതി അതിൽ ഞാൻ സൈൻ ചെയ്തുകൊടുക്കാം മൂന്നുദിവസത്തെ ലീവ് ആ ആ ആ ഓക്കെ ഓക്കെ ഇനി ഇനി ഇനി ഇനിയൊരു ലീവെടുക്കേണ്ട ആവശ്യം ഉണ്ടാവരുത് അവൾക്ക് എന്നുവെച്ചുകഴിഞ്ഞാൽ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ ബൈ